എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ ഒരു ബ്യുട്ടീഷനാണ് ഞാൻ ബ്യുട്ടീഷൻ്റെ പ്രേത്യേകത എന്ന് വച്ചാൽ മേക്കപ്പ് എല്ലാം പ്രൊഫഷണലായിട്ടും അങ്ങനെ സംഭാവന ചെയ്യുന്ന ഒരു രീതിയാണ് ചില സമയങ്ങളിൽ തിരക്കും ചില സമയങ്ങളിൽ തിരക്കുമില്ലാത്ത ഒരു അവസ്ഥ ചേർന്നതാണ് പിന്നെ കസ്റ്റമറെ കയ്യിലെടുത്തും അവരെ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് എന്ന കൂടുതൽ അതായത് അവർ ആഗ്രഹിച്ചതിനേക്കാൾ കൂട്തൽ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് ചെയ്തു കൊടുക്കണം എന്ന ഒരു രീതിയൊക്കെ ഉള്ള ഒരു മേഖല ആണിത് അതായത് കൂടുതൽ പുതുമ പുതുമ ഇഷ്ടപ്പെടുന്ന അതായത് പ്രൊഫഷനാണ് ഇത് കാരണം കൂടുതലും പുതിയത് പുതിയതെന്തോ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയായിട്ടുള്ള കാര്യങ്ങൾ കൂട്തലും കൊണ്ടുവരാനും ശ്രമിക്കുന്ന മേഖലയാണ് ഇത് അതുകൊണ്ടു തന്നെ ഇതിന് ഇത് ഇതിൻ്റെ പഠനം ഭയങ്കര തിരക്കു കൂടിയതും ആണ് എന്നാൽ ഇതിൻ്റെ ജോലിയും അതുപോലെയാണ് പഠിക്കുന്നതിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ജോലി ചെയ്യുന്നതിൽ കാരണം ക്ഷമ വേണം അതോടൊപ്പം കസ്റ്റമറുമായിട്ടുള്ള മിങ്ക്ലിങ്ങ് അത് അത്യാവശ്യമാണ് അവരെ കയ്യിലെടുക്കുന്ന എടുക്കുന്നതുപോലെ ഇരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ലൈഫൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി അതുപോലെ പ്രാധാന്യമുള്ളതാണ്